നല്ല അഭിപ്രായങ്ങള് കിട്ടാൻ വേണ്ടി നമ്മളങ്ങനെ ആരും അപ്പം അങ്ങനെ തുന്നിയും തയ്ച്ചൊന്നും കൊടുത്തിട്ടൊന്നുമില്ല നിർമ്മിച്ച വസ്ത്രം സമ്മാനായിട്ട് നൽകിയിട്ടൊന്നുമില്ല സ്വന്തം കൊച്ചിന് തയിച്ച് ഇട്ടിട്ട് ഉണ്ടെന്നല്ലാതെ പുറത്ത് നമ്മള് കൈ കൊണ്ട് തയ്ച്ചും മെഷീനിൽ തയിച്ചൊന്നു ആർക്കും ഒന്നും കൊടുക്കുവോ അങ്ങനെ താ ങ് വാ അങ്ങനെ കൊടുത്തിട്ടില്ല അതുകൊണ്ട് അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും കിട്ടിയിട്ട് കിട്ടിയിട്ട് ഇല്ല ഒന്ന് നല്ല അഭിപ്രായങ്ങളൊന്നും വസ്ത്രം തന്നെ തയിച്ച് കൊടുത്തിട്ടൊന്നുമില്ല വസ്ത്രങ്ങളൊന്നും നമ്മള് തയിച്ച് കൊടുത്തിട്ടൊന്നുമില്ല ഞാൻ സ്വന്തമായിട്ട് കൈ കൊണ്ട് തയിച്ച് എൻ്റെ മക്കൾക്ക് തന്നെ മാത്രം ഇട്ടു കൊടുത്തിട്ടുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് തയിച്ച് കൊടുക്കാനുള്ള അവസര അവസരം എന്ന് പറഞ്ഞാൽ തയ്യല് നമ്മള് പഠിച്ചിട്ടില്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യാനായിട്ട് ഒന്നും നമുക്ക് പറ്റിയിട്ടില്ല അതുകൊണ്ട് അങ്ങനെ ഇപ്പം മൊത്തത്തിൽ നിന്നും നല്ലൊരു അഭിപ്രായം എന്ന് പറയാനായിട്ട് നമുക്ക് പറ്റിയില്ല നമ്മള് കൊടുത്തെങ്കിൽ മാത്രമല്ലേ നമുക്ക് അങ്ങനെ ഒരു നല്ല അഭിപ്രായവും കിട്ടാനുള്ള സാധ്യതയുള്ളൂ നമ്മള് തയ്ച്ചു നമ്മുടെ പിള്ളേർക്ക് ഇടുന്നത് അല്ലേൽ സ്വന്തവായിട്ടിടുന്നത് അത്രയും മാത്രമെ ചെയ്തിട്ടുള്ളൂ അല്ലാതെ മറ്റുള്ളവരുടെ കൈയ്യിൽ കൊടുത്ത് നമുക്ക് നമ്മുടെ കഴിവിനെക്കുറിച്ച് അങ്ങനെ അഭിപ്രായം പറയാനായിട്ട് നമ്മൾ അവരുടെ അവരോട് നമ്മള് ഒന്നും അതിനായിട്ടൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാത്ത കാരണം നമുക്ക് അഭിപ്രായം എന്ന് പറയാനും പറ്റില്ല നമ്മള് സമ്മാനമായിട്ട് വസ്ത്രം കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് സ്വന്തവായിട്ട് ചെയ്ത ചെയ്ത് കൊടുത്തതായിട്ട് നമുക്ക് പറയാന് പറ്റില്ല നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒക്കെ മേടിച്ച് കൊടുക്കുമ്പോള് ഓരോരുത്തരും നല്ല കാര്യങ്ങള് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വസ്ത്രം നിർമ്മിച്ച് കൊടുത്തിട്ടില്ലേലും കമ്മല് മാല വള കൊലുസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മൊത്തം കൊണ്ട് ഉണ്ടാക്കി അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്ത് ഓരോരുത്തര് ന്ന ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അങ്ങനെ അത് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു പഠിക്കാൻ പോയി അതൊക്കെ ചെയ്ത് ഓരോരുത്തരും നല്ലതാന്നും പറഞ്ഞോണ്ട് ഓരോരുത്തര് മേടിക്കുകയും ഇടുകയും നല്ല അഭിപ്രായങ്ങള് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് വസ്ത്രം അങ്ങനെ കൊടുത്തതായിട്ട് ആർക്കും അങ്ങനെ ഞാൻ തയ്ച്ച് കൊടുത്തിട്ടില്ല കൈകൊണ്ട് നിർമ്മിച്ചൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ നല്ല നല്ല രീതിയിൽ കുറെ കുറെ നാളത്തേന് നല്ല രീതിയിൽ മുത്തുകളും പിന്നെ അങ്ങനെയുള്ള ചെയ്നുകളും എല്ലാം ഉണ്ടാക്കി ഓരോരുത്തർക്ക് കാതിലിടാനും കാലിലിടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരിയേറെ ചെയ്തിട്ടും മാലയായിട്ടുണ്ടാക്കിയിട്ടുണ്ട് അന്നേരമൊക്കെ നല്ല അഭിപ്രായങ്ങൾ കേട്ടിട്ടുണ്ട് തുന്നി ഉണ്ടാക്കി അങ്ങനെ ഒരു അഭിപ്രായം എന്ന് പറയാന് ഉപഭോക്താക്കളിൽ നിന്നും അങ്ങനെ നല്ലൊരു അഭിപ്രായം ഒന്നും പറയാൻ പറ്റുകയില്ല കാരണം എന്ന് വെച്ചാല് നമ്മളാ പരിപാടി ചെയ്തിട്ടില്ല എൻ്റെ കൊച്ചിന് സ്വന്തവായിട്ട് ഇങ്ങനെ പെറ്റിക്കൊട്ടൊക്കെ തയ്ച്ചിടുമ്പോൾ ഇത് നല്ല ആ ഇത് നല്ല ഭംഗി ഉണ്ടല്ലോ നീ കൈ കൈകൊണ്ട് തയ്ച്ചതാണോ നല്ലതാണല്ലോ എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള അഭിപ്രായങ്ങൾ എന്ന് വെച്ച് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് ചെറുപ്പം കൊച്ചിന് പെറ്റിക്കോട്ട് തയ്ച്ചിടീച്ചപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ഇത് നല്ല രസമുണ്ടെല്ലോ നീ കൈ കൊണ്ട് തയ്ച്ച്ണ്ടാക്കിയതാണോ എന്നൊക്കെ അങ്ങനെ വീട്ടിൽ നിന്ന് വലിയ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നല്ലാതെ ഞാനങ്ങനെ പുറത്താർക്കും അങ്ങനെയൊന്നും കൈകൊണ്ട് തയ്യിച്ച് കൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഉള്ള അവസരങ്ങളുണ്ടായിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടും ഇല്ല അത് അത്രയൊക്കെ ഉള്ളൂന്ന് പറയാൻ പറയുകയാണെങ്കിൽ വേറെ അഭിപ്രായങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഡ്രസ്സിടുന്ന കാണുമ്പോൾ ആൾക്കാര് നല്ലതെന്ന് പറയാറുണ്ട് അങ്ങനെ ഒക്കെ ഉള്ളു അല്ലാതെ മറ്റുള്ളവരെ കൈയും കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങള് ആയാലും നമുക്ക് നല്ല അഭിപ്രായം എന്ന് പറയാൻ പറ്റുകയില്ലല്ലൊ അങ്ങനെ ഓരോ കാര്യങ്ങള് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് ഇത്രയൊക്കെ ഉള്ളൂ